ഞങ്ങളുടെ നാട്ടിൽ മൺചട്ടി കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന പല പല ആൾക്കാരുണ്ട് അവർ എല്ലാം നിയമപരമായിട്ടുള്ള ലൈസൻസ് ആണെങ്കിലും അതിൻ്റെ കരാറുകൾ ആണെങ്കിലും പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ആ ആ കരകൗശലം മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ മൺചട്ടി ആണെങ്കിൽ പോലും കരകൗശല വസ്തുക്കളാണെങ്കിൽ പോലും നിർമ്മിക്കുന്നതിനായാലും വിൽക്കുന്നതിനായാലും അതിൻറേതായിട്ടുള്ള അതിൻറേതായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചതിന് ശേഷം മാത്രമേ അവർ അതിന് അത് ചെയ്യുകയുള്ളൂ കരാറുകൾ ആണെങ്കിൽ പോലും ഇത്രയും നാളത്തേക്ക് ഇത്ര കരാർ എടുത്ത പലരും പല സ്ഥല സ്ഥലങ്ങളിലും ചെറുകിട വ്യവസായം നടത്തുന്നുണ്ട് അതും ആ കരാറുകളെ ബന്ധപ്പെട്ട് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അതിന് പല പല വ്യാപാര മുദ്രകളും ഉണ്ട് ഓരോ ചെറുകിട വ്യാപാരത്തിനും അതിൻറേതായിട്ടുള്ള ഓരോ മുദ്രകൾ നൽകിയിട്ടുണ്ട് അതിന് ലോഗോകൾ നൽകിയിട്ടുണ്ട് അവർക്ക് അത് ആ ലോഗോ അവരുടേത് മാത്രമായ കുഞ്ഞി കുഞ്ഞി ചെറിയൊരു കരകൗശലവസ്തുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബിംബങ്ങൾ പോലും ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന് അവരുടേതായിട്ടുള്ള ലോഗോകൾ കാണിക്കുന്നുണ്ട്